ഞാൻ ഡാൻസ് റീലുകളും ഷോർട്സും ഒക്കെ കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യുബിലും ഒക്കെ ഞാൻ ഒരുപാട് ഡാൻസ് റീലുകളും ഷോർട്സുകളും ഒക്കെ കാണാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട നർത്തകർ ആരാണെന്ന് ചോദിച്ചാൽ മാളവിക റംസാൻ സാനിയ സാനിയ ഒരു ആക്ടറും കൂടിയാണ് അതുപോലെ ദിൽഷ പ്രസന്നൻ ഇവരുടെയൊക്കെ ഡാൻസും അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഉള്ളവരുടെ റീലുകളൊക്കെ എനിക്ക് കാണുന്നത് വളരെ ഇഷ്ടമാണ് അതുപോലെത്തന്നെ അപ്പു പിന്നെ അന്ന എന്നിവ എന്നിവ എന്നീ ഇവർ സെലിബ്രിറ്റീസും കൂടിയാണ് അതുപോലെ നർത്തകരും ഇവരുടെയൊക്കെ റീൽസ് കാണുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ കൂടുതൽ സമയം ചിലവഴിക്കുന്നതും ഇവരുടെ റീൽസ് കാണാൻ വേണ്ടി മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് റീലുകളും അതുപോലെ പേരറിയാത്ത ആൾക്കാരുടെ പല ഡാൻസുകളും എനിക്ക് വളരെ ഇഷ്ടപ്പെടാറുണ്ട് അതിൽ സ്ഥിരമായിട്ട് കാണുന്ന ചില ആൾക്കാർ ഇവരൊക്കെയാണ്